ഹലോ ഹലോ പറയൂ ആ ആ ആ ആ പറയൂ ഏത് സാരിയാണ് വേണ്ടത് ബനാ ആ ആ ആയിക്കോട്ടെ ബനാറസിയുണ്ട് വേറെ ഉണ്ട് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ കാണാൻ പറ്റും മോളിലത്തെ നിലയിലോട്ട് കയറി വന്നാൽ മതി കാണാം കാണാം

കാഞ്ചീപുരം ഉണ്ട് വേറെ ബനാറസുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി തിരഞ്ഞെടുക്കാം നല്ലത് നല്ല ക്വാളിറ്റിയുടെ തന്നെയാണ് നല്ല ഇതുതന്നെയാണ് പ ആ വേ ആ ശരി ഒരു റേറ്റ് മൂവായിരം തൊട്ട് തുടങ്ങും മൂവായിരം മൂവായിരത്തഞ്ഞൂറൊക്കെയുള്ള അതനുസരിച്ചുള്ള ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അതെ അതെ അതെ എല്ലാം പ്യൂർ കാഞ്ചീപുരം ആണ് പിന്നെ ബനാറസും ബനാറസും ഉണ്ട് കോട്ടൻ്റെ ഉണ്ട് ഏത് ഐറ്റംസ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ആ ഓക്കെ നമ്പർ അത് മാളിലേക്ക് വാ അവിടെ ഇവിടെ വന്നാൽ ഏത് കടയിൽ നോക്കാം നോക്കിയിട്ട് നമുക്ക് സാധനം കൺഫേം ചെയ്യാം ആ ശരി എന്നാൽ ഇത് തരേണ്ട ആ മോളിലത്തെ നിലയിലേക്ക് വന്നാൽ മതി അവിടെ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ചെയ്യാം പിന്നെ അതിൻ്റെ ആറെണ്ണത്തിന്റെ ആറെണ്ണം ആ മൂവായിരം ത്രീ തൗസൻഡ് വെച്ചതാണെങ്കിൽ ഒരു ആയിരത്തെണ്ണൂറ് രൂപ ആയിരത്തെണ്ണൂറ് രൂപയേ വരുന്നുളളൂ ശരി ആ